നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ അവസ്ഥ അത് വളരെ വ്യത്യാസപ്പെടുന്നത് അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യ വിശ്വാസങ്ങളിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക അല്ലെങ്കിൽ പാരമ്പര്യ വിശ്വാസ കർമ്മങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന മണ്ഡലങ്ങളുമെല്ലാം അതിൻ്റെ വ്യത്യസ്തത ഏറെ ശ്രദ്ധയമാക്കുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഏറെ വ്യത്യാസപ്പെടാനുള്ള ഒരു വലിയ കാരണം ഇതിൻ്റെ പാരമ്പര്യവും വിശ്വാസങ്ങളുമാണ് ഇന്ത്യയെ സംബന്ധിച്ചു പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരുപാടു മതങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇന്ത്യയെക്കുറിച്ചു മതേതര രാജ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നതു തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിശ്വാസങ്ങളും ഇന്ത്യയുടെ മതങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുടെ പാരമ്പര്യങ്ങളുമെല്ലാം ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രാതിനിധ്യം നേടിിക്കൊടുക്കുന്നതിൽ അതിനു വലിയ പങ്കു തന്നെ വഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ മതങ്ങളെക്കുറിച്ചു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശ്വാസങ്ങളെക്കുറിച്ചു പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാടു വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾ അതുപോലെ മുസ്ലിം വിഭാഗങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അതുപോലെ സിക്ക് വിഭാഗങ്ങൾ അതുപോലെ മറ്റുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നമുക്കു കാണാൻ സാധിക്കും പലരും അവരുടെ വിശ്വാസങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും മുറുകെപ്പിടിച്ചു ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും കണ്ടറിയുന്നതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിരന്തരമായി വന്നു പോകുന്നതു തന്നെ ഇന്ത്യയുടെ അളവു കോൽ എത്രമാത്രം ഉയർന്നതാണ് എന്നതു നമുക്കു മനസ്സിലാക്കാൻ സഹായിക്കും ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ഒരു ഒരു രീതിയിലുള്ള വിശ്വാസമാണ് മുറുകെപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു ഹിന്ദു വിഭാഗങ്ങൾ അതിൽ നിന്നു വ്യത്യസ്തമായിരിക്കും ക്രിസ്ത്യന് വിഭാഗങ്ങൾ അതിൽ നിന്നു മറ്റൊരു രീതിയായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക എങ്കിലും ഇവരെല്ലാം ഒത്തുകൂടുന്ന അതിൻ്റെ സ്നേഹവും ഐക്യവും എല്ലാം ഇന്ത്യയെ എപ്പോഴും വ്യത്യസ്തരാക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടീമിൽ ഈ എല്ലാ മതക്കാരും നമുക്ക് അണിചേർന്നതായി കാണാൻ സാധിക്കും ഇന്ത്യയിലെ ഏതു ഭാഗങ്ങളെടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതു സ്ഥലങ്ങളെടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം എല്ലാ അല്ലെങ്കില് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ എല്ലാ മതക്കാരും ഒന്നിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ശാന്തിയായി ജീവിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു കൺകുളിർമ്മയേകുന്ന കാഴ്ചയാണു നമുക്ക് ഇന്ത്യ കാണിച്ചുതരുന്നത് ഇന്ത്യയിലെ ആദ്യ കാല മതങ്ങളും അല്ലെങ്കിൽ അവസാന കാല മതങ്ങളും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ വിശ്വാസങ്ങൾ പരമായി അല്ലെങ്കിൽ വിശ്വാസപരമായി അവർ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരെല്ലാം ഒരു ഇന്ത്യയുടെ ഒരു കൊടിയുടെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നിയമത്തിൻ്റെ കീഴിൽ അവരെല്ലാം ഒന്നിച്ചുചേരുന്നു എന്നത് ഇന്ത്യയെ ഏറെ വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു കാര്യമാണ്